ഞാൻ ഓൺലൈനിൽ കൂടെ ഒരു ജീൻസ് ഓർഡർ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഞാൻ സൈസും കളറും പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടാണ് ജീൻസ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് കിട്ടിയ ജീൻസിന്റെ സൈസും കളറും വേറെ ആയിരുന്നു ഞാൻ ബ്ലാക്ക് ജീൻസ് ആണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് വന്നത് വൈറ്റ് ആയിരുന്നു അതെ പോലെ സൈസ് ട്വൻറ്റി ഏയ്റ്റ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്നു കാരണം എനിക്ക് ട്വൻറ്റി ഏയ്റ്റ് സൈസിലുള്ള ജീൻസ് മാത്രമാണ് ഫിറ്റ് ആവുന്നത് വേറെ ഏത് സൈസിലെ ജീൻസ് എടുത്താലും എനിക്ക് നല്ല ലൂസ് ആവുകയാണ് ചെയ്യുന്നത് സോ ഞാൻ ട്വൻറ്റി ഏയ്റ്റ് ആണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് വന്നത് തേട്ടി ഏയ്റ്റ് ആണ് സോ എനിക്കത് ഒരുപാട് വലുതായിരുന്നു എത്ര ഓൾട്ടർ ചെയ്താലും അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് ഫിറ്റ് ആയി കിടക്കില്ല അതേപോലെ കളർ വൈറ്റ് ജീൻസ് എനിക്ക് ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് വൈറ്റ് ആണ് വന്നത് എനിക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് എനിക്കാ ജിൻസിന്റെ ആവശ്യം ഇല്ല ഞാൻ അത്രയും അത്രയും മെൻഷൻ ചെയ്തിട്ടാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തത് കാരണം റോങ്ങ് ഓർഡർ ആകാതിരിക്കാൻ അതിന്റെ റോങ്ങ് സാധനം എനിക്ക് പ്ലേസ് ആകാതിരിക്കാൻ അത്രയും ശ്രദ്ധിച്ചാണ് ഓർഡർ പ്ലേസ് ചെയ്തത് പക്ഷേ എനിക്ക് വന്നത് വേറെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അതിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല സോ ഞാൻ അത് റിട്ടേൺ ചെയ്യുകയാണ്